ഹലോ അതേ പാർസൽ സർവീസുണ്ട്

ആ ആ ആ നാലഞ്ചറ്റം ആ ഉണ്ട് ഉണ്ട് അതൊക്കെയുണ്ട് ആ ഐറ്റംസ് ആ സ്നാക്ക് ഐറ്റംസ്സ് ഒരുവിധം ഐറ്റംസ്സക്കെ ഉണ്ട് പഴമ്പൊരീ പിന്നെ സുഖിയന് ഉള്ളിവട പക്കവട അങ്ങനെ വന്നിട്ട് പല ഒരുവിധം ഐറ്റംസ്സൊക്കെയുണ്ട് അതിലേതാ വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി എത്രാ അതുമുണ്ട് വെള്ളപ്പം നൂലപ്പം ചപ്പാത്തി പൊറോട്ട

പൊറാട്ട പത്ത് രൂപ ആണ് അതേപോലെ മറ്റു കടികൾ ഡിസ്ക്കൗണ്ട് ആ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ആ കുറെ വാങ്ങുമ്പോൾ ഡിസ്ക്കൗണ്ടുണ്ടാവും ആ ആ ആ അങ്ങനെ വരുമ്പോൾ ഡിസ്ക്കൗണ്ടിൽ കൊടുക്കും ആ ആ എന്നാൽ ആയിട്ട് വിളിച്ചാൽ മതി സമയമാകുമ്പോൾ ഓക്കെ